ഞാൻ വാങ്ങിയ ഉൽപ്പന്നം സ്കൂൾ ബേഗാണ് നല്ല കളറുള്ള നല്ല യൂസ് ചെയ്യാൻ നല്ല കംഫേർട്ടുള്ള സ്കൂൾ ബാഗാണ് എനിക്കത് വളരെ ഇഷ്ടാമായി കുറച്ച് നാള് ഞാൻ യൂസ് ചെയ്തു നല്ല മെറ്റീരിയലാണ് ഞങ്ങൾക്കിഷ്ടപ്പെട്ടൊരു കമ്പനിയുടെ ബാഗാണത് അതുകൊണ്ട് തന്നെ ഒരുപാട് നാളത് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ട് മൊത്തത്തിൽ ഈ പ്രൊഡക്ടിന് ഞാൻ സംതൃപ്തനാണ്